ഹലോ ജിനേഷ് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് അല്ലെ ആ അവിടെ എന്തൊക്കെയാ ഓഫറുള്ളത് എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ ആ ആ ഒക്കെ എത്ര പെർസെന്റേജ് ആണ് നിങ്ങൾ ഓഫർ ചെയ്യുന്നത് പതിനഞ്ച് മുതൽ ആ ഓക്കെ ഓക്കെ അപ്പോൾ ബാക്കി വേറെയെന്തിനെങ്കിലും ഓഫറുണ്ടോ വിൽക്കണ ഐറ്റംസിന് അല്ലേ അപ്പോൾ വാഷിങ്ങ് മെഷീനൊക്കെ എത്രയാണ് റേറ്റ് വരുന്നത് അവിടെ ട്വന്റി ആ അതിനെന്തെങ്കിലും ഇപ്പം ചെറിയ പെരുന്നാളിന്റെ എന്തെങ്കിലും ഓഫറോ കാര്യമോ ബാക്കി നിൽക്കുന്നുണ്ടോ അടുത്താഴ്ച്ച കൊണ്ട് തീരുമല്ലേ അപ്പം ആ ഓക്കെ ഓക്കെ അപ്പം ഈ പച്ചക്കറി അങ്ങനത്തെ അതിനൊക്കെ പുറമെ ഭയങ്കര വിലയാണ് അപ്പോൾ അവിടെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഓഫറോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ

ടെൻ പെർസെന്റേജ് അല്ലേ തക്കാളിക്കൊക്കെ അതെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇവിടെ പുറത്ത് നൂറിന് മുകളിലുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ച് ഹ്യൂജ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു രണ്ട് ആ ഓക്കെ നാടനും മറ്റേ ഇതും അല്ലെ പുറത്തു നിന്ന് ആ ഓക്കെ എയിറ്റി ആ ഓക്കെ ഇതൊക്കെ മറ്റേ ഓർഗാനിക്ക് ആണോ പച്ചക്കറിയൊക്കെ ആ മറ്റേതൊക്കെ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെയൊ ഈ വെണ്ടക്ക അങ്ങനത്തെയൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതാണോ അതോ പുറമേ നിന്ന് കൊണ്ടുവരുന്നതാണോ ഓക്കെ അല്ലെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ വൈകുന്നേരമൊന്ന് വരാം എനിക്ക് കുറച്ച് കൂടുതൽ ഐറ്റംസ് വേണം അപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആ മതിയാക്കി ഓക്കെ എന്നാൽ ഞാൻ അങ്ങ് വന്നേക്കാം ഓക്കെ ഓക്കെ